ഒന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്പത് നാല് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇരുപത്തഞ്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഇരുപത്തി രണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്പത് മുപ്പത് ഒന്പത് രണ്ടായിരം